ആ പറയൂ പറയൂ ഹാ ആ ഓക്കേ ഓക്കേ ഓക്കേ ഇരിക്ക് ഇരിക്കൂ കേട്ടോ ഒരു മിനിറ്റെ പേര് എന്തായിരുന്നു പറഞ്ഞിട്ട് ഉണ്ടായിരിന്നത് ആ ശരി ഓക്കേ ഓക്കേ പിന്നെ എത്ര വയസ്സ് ആയിട്ടുണ്ട് അത് ഓക്കേ ആ ഓക്കേ അഖിലെ ഇപ്പം നമ്മളിപ്പം ചെറുപ്പക്കാർക്കൊക്കെ ആയിട്ട് ഒര് നല്ലൊരു പ്ലാൻ നമുക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പം എന്താ വർക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലെ ഓക്കേ ഓക്കേ അപ്പം അതായത് പ്രൈവറ്റ് സെക്റ്റർ ആണ് അല്ലെ നമുക്ക് അതായത് പെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുമെന്ന് ഉണ്ടാവില്ല മേയ് ബി നല്ലൊരു ജോലിക്ക് കിട്ടുന്ന അപ്പം നമുക്ക് ഇപ്പോഴൊരു പുതിയൊരു പ്ലാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇത്രയും ഇൻഷുറൻസ് കമ്പനികളിൽ പ്ലാൻ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് വന്നിട്ടുണ്ട് സെഞ്ച്വറി പ്ലാൻ എന്നാണ് ആ പ്ലാനിൻ്റ പേര് അറിയാമല്ലൊ സെഞ്ച്വറി എന്ന് പറയുമ്പം നൂറ് വർഷമാണ് അതിൻ്റെ ഒര് ഇത് വരുന്നത് പക്ഷെ നമ്മുടെ പ്ലാനിൽ പ്രത്യേകത എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങ് ഇതിൻ്റ ഒര് ഇൻകം നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലൈഫ് ലോങ്ങ് കൊണ്ടുപോവാം പറ്റും പക്ഷേ നമ്മൾ ഒരിക്കലും നൂറ് വയസ്സുവരെ നമ്മൾ പറയുന്നൊന്നുമില്ലാ നമുക്കൊരു എൺപത് വയസ്സുവരെ ചൂസ് നമുക്ക് കിട്ടുന്ന എൺപത് വയസ്സുവരെ നമുക്ക് കിട്ടുന്ന പോലത്തൊരു പ്ലാൻ ആണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ നമ്മൾ അടയ്ക്കുന്ന ടൈമിൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഇൻകം അതിൻ്റ ചെറിയൊരു പോർഷൻ നമുക്ക് ഒരു ബെനിഫിറ്റ് നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നമ്മളിപ്പൊഴൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ അത് ഒരു വൺ ലാഖ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറ് തന്നെ നെക്സ്റ്റ് മന്ത് വേണമെങ്കിൽ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറ് നമുക്ക് ഒരു മണി മണി ബാക്ക് പോലെ നമുക്ക് ഒരു ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു നമ്മുടെ ഇത് ഇപ്പം ഇരുപത്തെട്ടായിരം രൂപ കൊണ്ട് ഇരുപത്തെട്ടായിരം രൂപ കൊണ്ട് നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വച്ചിട്ട് നമ്മൾ പേയ്മെൻ്റ് ചെയ്യുന്നത് പത്ത് കൊല്ലം ആണെങ്കിൽ ആ പത്ത് കൊല്ലം നമുക്ക് ഈ ഒര് എമൗണ്ട് കിട്ടുന്നുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ എൺപതാമത്തെ വയസ്സുവരെ നമുക്ക് ഇതിൻ്റെ ഇരട്ടി ഏകദേശം ഇതിൻ്റെ ഇരട്ടി നാല്പത്തിനാലായിരത്തി സംത്തിങ്ങ് വച്ചിട്ട് നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് ആണെന്ന് തോന്നുന്നു അത്ര വച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉള്ള എൺപത് വയസ്സുവരെ ക്രെഡിറ്റ് ആവും എൺപതാമത്തെ വയസ്സിൽ എനിക്ക് ഒരു ഏകദേശം ഒരു അമ്പത് ലക്ഷം സംത്തിങ്ങ് അമ്പത് ലക്ഷത്തി സംത്തിങ്ങ് ഒക്കെ ആയിട്ട് ഇത് നമ്മുടെ എൺപതാമത്തെ വയസ്സിൽ നമുക്ക് ഒരു എമൗണ്ട് മെച്ച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് എൺപത് വയസ്സുവരെ വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴൊരു ഒര് പത്തൊ ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സല്ലെ ഒരു നാല്പത് നാല്പത്തഞ്ചാമത്തെ വയസ്സിലൊക്ക പെട്ടെന്ന് ഒരു ബൾക്ക് എമൗണ്ട് ആവശ്യം വരികയെന്ന് വിചാരിക്കുക ആ ബൾക്ക് എമൗണ്ട് ആവശ്യം വരിക നമുക്ക് അപ്പോൾത്തന്നെ സറണ്ടർ വിളിക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇതിൽ ഈ പറയുന്ന എമൗണ്ട് ഇപ്പോൾ ഈ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കിട്ടും അല്ലെങ്കിൽ നാല്പത്തിനാലായിരത്തി സംത്തിങ്ങ് അല്ലെങ്കിൽ അമ്പത് ലക്ഷം കിട്ടുമെന്നൊക്കെ പറയുന്നത് ടേക്സ് ഫ്രീ ആണ് നമുക്ക് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കുന്നില്ല അതാണ് നമ്മുടെ ഈ പ്ലാനിൻ്റെ പ്രത്യേകത പിന്നെ ഒരു അഡീഷണലായിട്ട് ഒരു അട്ട്രാക്റ്റീവായിട്ട് ഒരു ഇൻഷുറൻസ് കവറേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം എന്തിനാണ് ഇൻഷുറൻസ് കവറേജ് ആഡ് ചെയ്യുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് കിട്ടേണ്ട ഇത് എടുക്കും ഉണ്ടെങ്കിൽ മാത്രം ആണ് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് ഇൻഷുറൻസ് കവറേജും കൂടി നമ്മളിതിൽ ഒരു ആഡും ഒരു അട്ട്രാക്റ്റീവ് ആയിട്ടുണ്ടെന്ന് മാത്രം ഓക്കേ ഓക്കേ എന്തെങ്കിലും ഡൗട്ടുണ്ടോ ആ അത് ആ അതായത് നമുക്ക് ഇപ്പോൾ ആ അത്യാവശ്യം നമുക്ക് കെ വൈ സി കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ നമുക്ക് ബാങ്ക് പ്രൂഫ് കാരണം നമുക്ക് പൈസ നമുക്ക് ഈ ഒന്ന് പറഞ്ഞല്ലൊ എമൗണ്ട് അടുത്ത നെക്സ്റ്റ് ഇയർ ഓൺവേഡ്സ് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും എന്ന് പറഞ്ഞല്ലൊ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ബാങ്കിൻ്റ എന്തെങ്കിലും പ്രൂഫ് ചെക്കോ അല്ലെങ്കിൽ പാസ്സ്ബുക്കോ എന്തെങ്കിലും മതി പിന്നെ നിങ്ങളെ ലൈവ് ഫോട്ടോ പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് വേണം ആ പാരൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോമിനി ആരാണ് വയ്ക്കുന്നത് അതിന് കുറച്ച് ഡീറ്റെയിൽസും കൂടി വേണം എന്നു മാത്രം

ഇല്ലില്ലാ ആ ഇല്ല ഏത് ബാങ്ക് ആയാലും പ്രശ്നം ഒന്നുമില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചാബ് അല്ല നമ്മുടെ ഏത് ബാങ്കായാലും പ്രശ്നമൊന്നുമില്ല ആ ഓക്കേ ഓക്കേ ശരി കേട്ടോ നമുക്കിപ്പോൾ ഈ ഈ ഒരു നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന വൺ ലാഖാണ് നിങ്ങൾക്ക് എത്രയാണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒര് എമൗണ്ട് അതു വച്ചിട്ട് നമുക്ക് എത്രയാണെന്ന് വച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു ഫസ്റ്റിലത്തെ നമ്മളെന്തായാലും ആനുവൽ ആയിട്ട് അടയ്ക്കേണ്ടത് അടയ്ക്കണം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ആ പറയുമ്പോൾ മന്ത്ലി മന്ത്ലി പോകണപോലെ ഒരു ഇ എം ഐ പോകണപോലെ മന്ത്ലി ഇ എം ഐ പോകണപോലെ ഞാൻ ആക്കിത്തരാം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോല ഞാൻ ചെയ്തുതരാം കേട്ടോ ഓക്കേ ഓക്കേ ശരി ശരി